ഫോട്ടോ എടുക്കാനായി ഒരുപാട് സ്ഥലങ്ങളിഷ്ടാണ് ഇന്ത്യയിലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൽ ഇഷ്ടമാണ് ഇന്ത്യ എന്നത് ഏറ്റവും മനോഹരമായൊരു രാജ്യം തന്നെ ആണല്ലോ ഇന്ത്യയിലൊരുപാട് സ്ഥലങ്ങള് പിന്നെ മനോഹരമായി മനോഹരമായവയാണ് അതിനകത്ത് കാശ്മീരില് പോകണം എന്ന് നല്ല കാശ്മീരൊന്ന് സന്ദർശിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ ഹിമാലയം കുളു മണാലി ഹരിദ്വാറ് ഈ സ്ഥലങ്ങളൊക്കെ വളരെ മനോഹരമായവയാണ് അവിടെ നല്ല ഫോട്ടോ എടുക്കണം ആ ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയുടെ ബീച്ചുകളുള്ള സ്ഥലങ്ങള് ഗോവ മാലിദ്വീപ് ദീപുകൾ നിറഞ്ഞ സ്ഥലങ്ങള് അവിടെ നിന്നെല്ലാം ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ട് ഇന്ത്യയിലുടനീളം യാത്രയ്ത് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് ക്യാമറമാൻമാരുണ്ട് അവരെ ഒക്കെ അവരുടെ ഒക്കെ ഫോട്ടോസ് കാണുമ്പോൾ ആ ആ സ്ഥലങ്ങള് കാണുമ്പോൾ അവിടെയെല്ലാം പോകണം എന്ന് അവിടെ ഒന്ന് സന്ദർശിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നാറുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ മാത്രമല്ല ഇന്ത്യയ്ക്ക് പുറത്തും അവസരങ്ങൾ കിട്ടുമ്പോൾ പോകണം എന്നും പോയി കാണാനും ഫോട്ടോസെടുക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്